ഹലോ ആ മധുസാറാണോ ഇത് ആ അതെയതെ മധു സാറാണോ ഇത് ആ നമ്മുടെ നമസ്തേ നമസ്തേ ഓക്കെ ആ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ ആ നമുക്കെന്തായാലും കുട്ടികളുടെ കലാ പരിപാടികളും കുറച്ച് ആ കായിക മത്സരങ്ങളുവൊക്കെ ഉൾപ്പെടുത്തി നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെയും കൂടെ ആഗ്രഹം ആ അതെയതെ കുട്ടികളുടെ കുട്ടികളുടെ നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള അവരെ ബുദ്ധിപരമായിട്ടും അതുപോലെ കായികമായിട്ടുമുള്ള ഉന്നമനത്തിന് പറ്റുന്ന രീതിയിലുള്ള മത്സരങ്ങൾ നടത്തണം അവർക്ക് ഗുണപരമായിട്ടുള്ള മത്സരങ്ങൾ എന്താണെങ്കിലും മീറ്റിങ്ങ് എന്തായാലും വിളിക്കണം രക്ഷാകർത്താക്കളുടെയും അതുപോലെ കുട്ടികളെയും കൂടെ അതിനകത്തിൽ ഉൾപ്പെടിയിക്കണം ഉൾപ്പെടുത്തണം അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് കൂടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് നല്ലതാണ് അത് നല്ലതാണ് ആണ് ഓണാവല്ലേ അന്നേരം ഓണമാവുമ്പം ഓണ സദ്യ തന്നെ നമുക്ക് ഒരുക്കണം അത് വേണം അത് അത്യാവശ്യമാണ് ഒരു ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയാവുമ്പം ആ അതും നല്ലതാണ് അതും നല്ലതാണ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡണ്ടിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള വാർഡ് മെമ്പർ എന്തായാലും കാണുവല്ലോ പഞ്ചായത്ത് പ്രസിഡണ്ടിനെയോ മറ്റോ വിളിക്കുന്നതായിരിക്കും അതിന് നല്ലത് ഉണ്ട് ഉണ്ട് വേണം വേണം നമ്മൾ നടത്തണം ഏതൊരു പരിപാടിക്കും നമ്മൾ അത് ഇപ്പം നമ്മളൊരു സംഘടന ആളുകൾ സംഘടന നടത്തുന്ന പോലെ തന്നെ നമുക്ക് ആളുകളെയെടുക്കുന്ന എടുത്ത് നടത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഏകപക്ഷീയമായിപ്പോകും നമ്മളുടെ നമ്മുടെ ഇഷ്ടത്തിന് നടത്തുന്നുന്നുള്ളതായിപ്പോകും

ആ ഉണ്ട് അത് ആ അത് വേണം വേണം അത് വേണം എന്തായാലും നമ്മളൊരു കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കണമെങ്കിൽ അവർക്ക് അതിലൊരു പ്രചോദനം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം അത് ചെറുതായാലും വലുതായാലും നമ്മൾ സമ്മാനം കൊടുക്കേണ്ടതാവശ്യമാണ് എന്തായാലും നമ്മൾ മീറ്റിങ്ങിൽ എന്തായാലും കൂടുതൽ അതിനെപ്പറ്റി ചർച്ച ചെയ്താൽ പോരെ സാറെ മീറ്റിങ്ങ് വെച്ച് ആ ആ ശരി സാറെ ശരി സാറെ ആ ഞാൻ ഇതിൻ്റെ സഹായം സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ശരി ശരി